എനിക്ക് ഇഞ്ചിക്കറി ആക്കാനറിയാം ഇഞ്ചിപ്പുളി ആദ്യം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തിട്ട് എടുത്ത് വയ്ക്കുക അതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റി എടുക്കുക അതിന് ശേഷം അത് എണ്ണക്ക് കുറച്ചു പച്ചമുളക് ഇട്ടിട്ട് വരറ്റിയിട്ട് എടുക്കുക എടുത്തിട്ട് ആ എണ്ണ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഉലുവ എല്ലാം ഇട്ടിട്ട് ഒന്ന് അമ്മിക്കല്ലിട്ട് എല്ലാം കൂടി അരക്കുക അരച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക സേമിയ പായസം അങ്ങനെ തന്നെ സേമിക ചീന ചട്ടിയിൽ ഇട്ടിട്ട് വറക്കും നെയ്യിൽ വറുത്തു വറുത്ത് മാറ്റി വച്ചിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിലിടും സേമിക സേമിക ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരുമ്പഴത്തേക്ക് നമ്മൾ പാലൊഴിക്കും പാലും പഞ്ചസാരയൊഴിച്ച് ഏലക്ക പൊടി ഇട്ട് ഇറക്കി വയ്ക്കും ഇറക്കി വച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇട്ടിട്ട് എടുത്ത് വെക്കും തായ എറക്കി വക്കും അതിന് ശേഷം ചോറ് വയ്ക്കും ആദ്യം അടുപ്പ് കത്തിക്കും അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വയ്ക്കും വെള്ളം വച്ചതിന് ശേഷം വെള്ളം ചൂടായി വരുമ്പോൾ അരി കഴുകിയിട്ടിടും അരിയൊന്ന് ചോറ് വെന്തതിന് ശേഷം അതിനെ വാർക്കും പിന്നെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാനറിയാം ആദ്യം തേങ്ങ തേങ്ങ കറിവേപ്പില ഉള്ളി ജീരക വെളുത്തുള്ളി കായം എല്ലാം ഇട്ടിട്ട് വറക്കുക നല്ല ചെമന്ന കളരാകുമ്പൾത്തെക്ക് ഇറക്കി വയ്ക്കുക സാമ്പാറിനരിയുക സാമ്പാറിന് കുക്കറിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും സാമ്പാർ പരിപ്പ് അതിനെടുത്ത് വെള്ളം വെള്ളം തിളക്കുമ്പോൾ കുക്കറിൽ എല്ലാം ഇടും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഇടും അത് മത്തങ്ങ ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ക്യാരറ്റ് വഴുതനങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് കുക്കറിൽ വയ്ക്കും കുക്കറിൽ വച്ചിട്ട് വേവിച്ചെടുക്കും വേവിച്ചതിന് ശേഷം എല്ലാം രണ്ട് വിസിൽ വരുമ്പോൾ ഇറക്കി വയ്ക്കും അതിന് ശേഷം വെണ്ടക്ക ഒന്ന് അരിഞ്ഞിട്ട് എണ്ണയിൽ വരട്ടും എണ്ണയിൽ വരട്ടിയിട്ട് അതിനെ മുരിങ്ങാ കൊമ്പും തക്കാളിയെല്ലാം ഇട്ട് ഒന്നിച്ച് വേവിക്കും ഒന്നിച്ച് വേവിച്ചിട്ട് സാമ്പാറിൻ്റെ അരപ്പ് മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കും അരയ്ച്ചതിന് ശേഷം അത് നല്ല നൈസായിട്ട് അരയ്ക്കില്ല ഞാൻ കുറച്ച് തരി തരിയായിട്ട് അരക്കും പിന്നെ ഈ കഷ്ണത്തിലെല്ലാം ഒരു കഷ്ണം ശർക്കര ഇട്ട് ഈ സാമ്പാറിന് അരപ്പും എല്ലാം ഇടും എല്ലാം ഇട്ടിട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് കടുക് വറക്കും അതിന് ശേഷം മീൻ ഫ്രൈ ആക്കാൻ വയ്ക്കും മീൻ മുറിക്കും മീൻ മുറിച്ചിട്ട് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടി എല്ലാം ഇട്ടിട്ട് പുരട്ടി വയ്ക്കും വറക്കുമ്പോൾ അതിനെ വറക്കാൻ ഇടുമ്പോൾ ചീന ചട്ടി വയ്ക്കും എണ്ണ ഒഴിക്കും എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് മീൻ അതിലിടും പൊരിക്കും പിന്നെ അതിന് ശേഷം അവിയൽ ഉണ്ടാക്കും അവിയൽ ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാ കഷ്ണങ്ങളും പച്ചക്കായി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം മത്തങ്ങ ഇടും ചെറിയൊരു കഷ്ണം കയ്പ്പക്ക കോവക്ക എല്ലാം ഇട്ട് മുറിച്ച് വയ്ക്കും മുറിച്ച് വച്ചിട്ട് അരപ്പ് ആക്കും മഞ്ഞൾ പൊടി തേങ്ങ ജീരകം വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും നല്ല നൈസായിട്ട് അരക്കാതെ തരിതരിയായിട്ട് അരച്ചെടുക്കും ആ അരച്ചെടുത്തിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളും ഈ അരപ്പും കറിവേപ്പിലയും എല്ലാം ഇട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളത്തോടെ വേവാൻ വയ്ക്കും അത് നല്ല വെന്ത് എല്ലാം അങ്ങ് വരണ്ട് ഒരു പരുവത്തിൽ ആകുമ്പോഴത്തേക്ക് അതിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് ഇറക്കി വയ്ക്കും അതാണ് ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ പിന്നെ എൻ്റെ ഭർത്താവിന് ഞാൻ മീൻ കറി ഉണ്ടാക്കിക്കൊടുക്കും കൊടം പുളി ഇട്ട മീൻ കറിയാണ് എൻ്റെ ഭർത്താവിന് ഇഷ്ടം അപ്പം ഞാനത് ആദ്യം മീൻ ചെറിയ മീൻ നത്തോലി ആണെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കും അതിന് ശേഷം അതിന് മൈദ ഇടും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കൊടം പുളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഉള്ളി മീൻ എല്ലാം കൂടെ അരപ്പോടു വേവാൻ വയ്ക്കും അതിന് ശേഷം അത് നല്ല തിളച്ച് വന്നതിന് ശേഷം അതിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് ഇറക്കിയിട്ട് വയ്ക്കും പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കും രാത്രി അരി വെള്ളത്തിലിടും പച്ചരി രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അരക്കാം അരക്കുമ്പോഴത്തേക്ക് കുറച്ച് ചോറും ഇടും ഒരു മുറി തേങ്ങ ഇട്ട് നൈസായിട്ട് അരച്ചെടുക്കും നൈസായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് ഈസ്റ്റും തേങ്ങ വെള്ളം പഞ്ചസാര അതെല്ലാം ഇട്ട് വയ്ക്കും അതെല്ലാം ഇട്ട് വച്ച് എല്ലാം കൂടി നല്ല നൈസായിട്ട് അരച്ച മാവും ഇതെല്ലം കൂടി കലക്കി വയ്ക്കും രാവിലെ വെള്ളയപ്പം ചൂടും അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് കറിയുണ്ടാക്കും സ്റ്റൂ ആക്കും സ്റ്റൂവിൽ ഞാൻ ഇത് ഇടും ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളക് ഉള്ളി എല്ലാം ഒന്ന് ചീനച്ചട്ടിയിൽ വേവിക്കും വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ആദ്യത്തെ ഒരു പാലൊഴിക്കും രണ്ടാമത്തെ പാലൊഴിക്കും ആ പാൽ ഒഴിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ അത് കൊടുക്കും പിന്നെ ഞാൻ കൂട്ടുകറി ഉണ്ടാക്കും രാത്രി കടല വെള്ളത്തിലിടും രാവിലെ പച്ചക്കായും കടലയും ചേനയും ഒന്നിച്ച് വേവിക്കും അതിന് ശേഷം തേങ്ങ വറക്കും കുറച്ച് തേങ്ങ വറക്കും കുറച്ച് തേങ്ങ പച്ചക്ക് ഇടും രണ്ടും ഇട്ടിട്ട് വേഗം വേഗം അത് ചെറുതായിട്ടൊന്ന് അരക്കും നൈസായിട്ട് അരക്കില്ല ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കായയും കടലയും വെന്തതിന് ശേഷം ഇറക്കി വച്ച് ഇതിന് ഈ അരപ്പുകളെപല്ലാം ഇടും പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മീൻ കറി എൻ്റെ എൻ്റെ സ്റ്റൈലിലുള്ള മീൻ കറി ഞാൻ ഉണ്ടാക്കലുണ്ട് മീൻ മുറിച്ച് വച്ചു പിന്നെ മുളക് തേങ്ങ മല്ലി ഉലുവ ചെറിയ ഉള്ളി പുളി എല്ലാം ഇട്ട് മിക്സിയിൽ അരക്കും അരച്ചിട്ട് അതെല്ലാം കൂടി അരപ്പും മീനും ഉപ്പും എല്ലാം കൂടി ഒന്നിച്ച് വേവിക്കും നല്ല തിളച്ചതിന് ശേഷം നല്ല മീനും അതും എല്ലാം കൂടി വെന്തതിന് ശേഷം ഇറക്കിയിട്ട് വയ്ക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പാചകം എന്ന് വച്ചാൽ ചെറുപയർ പായസം ചെറുപയർ പായസം ഞാൻ ചെറുതായി ഒന്ന് വറക്കും നെയ്യിൽ വറത്തിട്ട് അത് വെള്ളം തിളക്കുമ്പോൾ അതിലിടും പിന്നെ കട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തിരി പച്ചരിയും അരച്ചിട്ട് ചേർക്കും ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കും ഏലക്ക ഇടും പിന്നെ തേങ്ങ കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം നെയ്യിൽ വറുത്തിട്ട് പായസത്തിൽ ഇടും പിന്നെ എന്ന് വച്ചാൽ എനിക്ക് അറിയുന്നത് വട്ടയപ്പം വട്ടയപ്പം ഇങ്ങനെ തന്നെ രാത്രി അരി വെള്ളത്തിൽ പച്ചരി വെള്ളത്തിലിട്ടു രാത്രി അരക്കും നല്ല നൈസായിട്ട് അരക്കും ചോറും തേങ്ങയും അരക്കും പിന്നെ ശർക്കര ശർക്കര ഉരുക്കിയത് വട്ടയപ്പം കുഴച്ചിട്ട് കള്ള് ഒഴിച്ചിട്ട് കലക്കിയിട്ട് വയ്ക്കും രാവിലെ പ്ലേറ്റ് വച്ചിട്ട് പ്ലേറ്റിൽ എണ്ണയും തേക്കും അതിലൊഴിച്ചിട്ട് ഒരു തട്ടിൽ നാല് അപ്പം തട്ട് തട്ടായിട്ട് വേവാൻ വയ്ക്കും അതിനു ശേഷം അത് പീസ് പീസായി മുറിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും പിന്നെ എൻ്റെ ഹസ്ബൻറ്റിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വട്ടയപ്പം പിന്നെ ഇഡലി ഉണ്ടാക്കും രാത്രി അരി വൈകുന്നേരം അരി വെള്ളത്തിലിടും ഞാൻ ആറ് മണിക്ക് ശേഷം അരി വെള്ളത്തിലിടും എപ്പം എനിക്ക് ഓർമ്മയാണ് അപ്പം ഞാൻ അരി വെള്ളത്തിലിടും രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉഴുന്നും ഇടും ഇട്ട് രാത്രി കുറച്ച് ചോറും ഇട്ട് തരി തരിയായിട്ട് അരച്ച് വയ്ക്കും രാവിലെ എണീച്ച് അടുപ്പ് കത്തിച്ച് അപ്പ കലത്തിൽ വെള്ളം വച്ച് ചെറിയ ചെറിയ കിണ്ണത്തിൽ ഇഡലി ഒഴിക്കും ഇഡലി ഒഴിച്ചിട്ട് നാൽപ്പത് മിനിറ്റ് വെന്തതിനു ശേഷം ഇഡലി ഇറക്കി വയ്ക്കും പിന്നെ എനിക്കറിയാവുന്ന പാചകം എന്ന് വച്ചാൽ എല്ലാ പാചകം എനിക്കറിയാം ഒന്നു അറിയാത്തത് ഒന്നുമില്ല മംഗളൂർ സ്റ്റൈലും അറിയും എൻ്റെ ഭർത്താവിൻ്റെ നാട് എറണാകുളമാണ് അതുകൊണ്ട് അവിടെത്തെ സ്റ്റൈലും ഞാൻ മീൻ കറി വയ്ക്കും എല്ലാ മീനും വയ്ക്കും എല്ലാ മീനും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് പാചകം ആക്കി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൊടമ്പുളി ഇട്ട കറിയാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എനിക്ക് പുലാവാക്കാൻ അറിയും രാവിലെ അരി കുതിർത്ത് വയ്ക്കും എണീറ്റപാടെ ഒരു രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് വയ്ക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കരിയാ ഗ്രാമ്പു പിന്നെ ഏലക്ക ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ പൊടിക്കും പൊടിച്ചിട്ട് കുക്കറ് വയ്ക്കും കുക്കറിൽ എണ്ണയും നെയ്യും ഒഴിക്കും ഒഴിച്ചിട്ട് ഈ ഉള്ളി വരട്ടും മൂന്ന് നാല് ഉള്ളിയെടുത്തിട്ട് ഉള്ളിയെല്ലാം വരട്ടിയിട്ട് നല്ല ഇതാകുമ്പോൾ ഈ പേസ്റ്റാക്കിയതെല്ലാം അതിലിടും അതിന് ശേഷം ഇതെല്ലം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇടും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊക്കെ ഇട്ട് ഈ അറിയും അതിൽ ഇട്ടു ഒന്ന് ഏലാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നാലു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേഗം വയ്ക്കും രണ്ട് വിസിൽ വരുമ്പോൾ ഇറക്കിയിട്ട് പുലാവുണ്ടാക്കും പിന്നെ ഉണ്ടാക്കുന്നത് നീർ ദോശ രാവിലെ രാത്രി അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എണിച്ചിട്ട് പച്ചരി അരച്ചു അരച്ചിട്ട് നീർ ദോശ വെള്ളക്കീട്ട് വെള്ളം നീർ ദോശ ഒഴിക്കും അത് എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മൂത്ത മോൻ്റെ കാര്യവും അങ്ങനെ തന്നെ അവനും അത് തന്നെ അവൻ എന്നും അവൻ പറയും അമ്മ ഇടിയപ്പവും ചിക്കൻ കറി വയ്ക്കണമെന്ന് പറയും അത് ഞങ്ങൾ രാത്രി അരി വെള്ളത്തിലിട്ടു രാവിലെ അരി അരച്ചു ഉണ്ടയാക്കി അടുപ്പത്ത് അപ്പക്കലത്തിൽ വച്ചു വേവിച്ച് വേവിച്ചതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു മെഷ്യൻ ഞങ്ങൾക്ക് വേറന്നേണ്ട് മാംഗ്ലൂർ സ്റ്റൈലിൻ്റെ അതിൽ ഞങ്ങൾ ഇടിയപ്പം ഇട്ട് തിരിച്ച് ഇടിയപ്പം ആക്കും തേങ്ങാപ്പാലും ഉണ്ടാക്കും സാമ്പാറും ആക്കും ചിക്കൻ കറി ആക്കും എല്ലാം കൂടി എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കലുണ്ട് പിന്നെ എൻ്റെ ചെറിയ കുഞ്ഞി എപ്പോഴും പറയും അച്ചമ്മെ എനിക്ക് പുട്ടു വേണം എന്ന് പുട്ട് ഉണ്ടാക്കും ഞങ്ങൾ തന്നെ അരി വെള്ളത്തിലിടും വെള്ള അരി വെള്ളത്തിലിടും രാവിലെ പൊടിച്ചിട്ട് അപ്പം തന്നെ പുട്ടുണ്ടാക്കും പുട്ട് തേങ്ങയിട്ട് കുഴച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നത് അത് രാവിലെ ഒക്കെ നല്ലത് ഉണ്ടാവും വൈകുന്നേരം ആകുമ്പഴത്തേക്ക് നല്ല കട്ടിയുണ്ടാവും അതുകൊണ്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കും അതിന് ഏത്തപ്പഴം പുഴുങ്ങിയതും ആക്കിയിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിക്ക് അതാണ് ഇഷ്ടം ഓരോ ഓരോ ആൾക്ക് ഓരോ ഓരോ ഇഷ്ടം നോക്കിയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ പാചകം അറിയാതെ ഒന്നുമില്ല എല്ലാ പാചകവും